ഹലോ ആ ഹലോ ആരാണ് ആ ജലജ ടീച്ചറെ എന്നാ ഉണ്ട് വിശേഷം

മ് അ അ അ ആ ആ ആ നമുക്ക് രാവിലെ പതാക ഉയർത്താൻ രാവിലെ പതാക പതാക ഉയർത്താം പിന്നെ അതു കഴിഞ്ഞിട്ട് പിള്ളേർക്ക് മുട്ടായി കൊടുക്കാം ആ അതൊക്കെ നടത്താം നമുക്ക് ആ സ്കൂൾ ആ പിള്ളേരേയൊക്കെ ഒരുക്കി സ്കൂൾ സ്കൂൾ ഗ്രൗണ്ടില് ആ പരേഡ് നടത്താം നമുക്ക് പരേഡ് ഗ്രൗണ്ടിൽ ആ അപ്പോള് അതെയോ സ്കൂളിൻ്റെ ഗ്രൗണ്ടില് നടത്താണോ അതെയോ നമുക്ക് പിന്ന ഗ്രൗണ്ടില് ടൗണില് ടൗണില് നടത്തണോ എവിടെയാണ്

മ്മ് മ് മ്മ്

അപ്പോള് നമ്മള് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനൊക്കെ ആയിട്ട് ആരെയാണ് ആരെയാണ് ക്ഷണിക്കുന്നത് ഉവ്വ് ആ ആണോ ആണോ മ്മ്

ആ അപ്പോള് പിന്നെ ഗാന്ധിജിയുടെ വേഷം കെട്ടി അങ്ങനെ ഓരോ വേഷങ്ങള് കെട്ടി ഓരോ പിള്ളേരുകളോരോ ആ അങ്ങനെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കില് നല്ലതായിരിക്കും ആ ആ ആ ആ മ്മ് മ്മ് മ്മ്മ്മ് മ്മ്

ഇപ്പോള് ആ അങ്ങനെ ആ അപ്പോള് അങ്ങനെ എല്ലാം പിള്ളേർക്ക് പൂവൊക്കെ കൊടുത്ത് എല്ലാത്തിലും നല്ല മ്മ് റോസാപ്പൂവൊക്ക കൊടുത്ത് മ്മ് മ്മ്മ്മ് മ്മ് മ്മ് മ്മ് മ്മ്മ്മ് ആ മ്മ് ആ പൂവൊക്കെ നമുക്കോർഡറെയ്യാം പൂവൊക്കെ ആ ടൗണിലെ കടയില്നിന്നു നമുക്ക് ഓർഡറേയ്ത് പൂവൊക്കെ വാങ്ങിച്ച് നോക്കാം നമുക്ക് ബാക്കി നമുക്കു വേണ്ട വിധത്തിലെല്ലാം ചെയ്യാം നമുക്ക് ആ അ മ്മ് ആ ആ അത് നമുക്ക് ഇനി ചെറുതായിട്ടൊരു ഫുഡൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് മ്മ് മ്മ് എന്താ എന്താണ് അ മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് ആ അപ്പോള് അപ്പോള് നമുക്ക് ഇതിനൊക്കെയായിട്ട് ഫണ്ട് നമുക്ക് ചെറുതായിട്ടൊരു ഇത് വേണ്ടേ ഫണ്ട് ആ ആ ഹാ ആ ആ ആ നമുക്ക് പി ടി എ പി ടി എയിലറിയിക്കാം ആ പി ടി എക്കാരുമായിട്ട് സംസാരിച്ച് അങ്ങനെ അതിൻ്റെ കാര്യങ്ങള്ള് നമുക്ക് തീരുമാനിക്കാം അതെയോ ആ ആ അപ്പോള് നമ്മളെന്നാണ് മീറ്റിംഗ് കൂടേണ്ടത് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് എന്നാല് നമുക്കൊരു പത്താം തിയ്യതി മീറ്റിംഗ് കൂടിയിട്ട് മ്മ് മ്മ് മ്മ് ശരി മ്മ് മ്മ് എന്നാല് ശരി നാളെ കാണാം ആ ശരി ഓക്കെ ഓക്കെ